ഹലോ തിരുമേനി അല്ലേ ഹലോ ആ ഞാൻ ആലപ്പുഴയിൽ നിന്ന് വിളിക്കുവായിരുന്നു ഈ മാസം പതിനെട്ടാം തീയതി എൻ്റെ മോളുടെ കല്യാണം ആയിരുന്നേ അപ്പോൾ ഞാൻ അവളുടെ അവളുടെ നാളിൻറെ കാര്യമൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതായിരുന്നു അവളൊരു ജാതക ദോഷക്കാരി ആയിരുന്നു പൊരുത്തം നോക്കിയിരുന്നു എന്നാലും ഒന്നും കൂടി തിരുമേനിയെ കാ വിളിച്ചൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചതായിരുന്നേ

അല്ല തിരുമേനി പൊരുത്തം ആറ് പത്തിൽ ആറേ ഉള്ളൂ അപ്പോൾ അത് ഏന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയാൻ രണ്ട് പേരുടെയും നാൾ തന്നാൽ തിരുമേനി അതൊന്ന് നോക്കിയിട്ട് ഒന്ന് പറയാമോ എന്ന് അറിയാനായിരുന്നു ആ ആ ആ ആ ആ അവളൊരു ജാ അവളുടെ നാളിനിത്തിരി ദോഷമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ വഴിപാടൊക്കെ പറഞ്ഞിരുന്നു എന്നാലും നമ്മുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എന്നാൽ തിരുമേനിയോട് ഇതൊന്ന് വിളിച്ചിട്ടാണെങ്കിൽ ഒന്ന് കൺഫേം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു പതിനെട്ടാം ഈ മാസം പതിനെട്ടിന് നടത്താനായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ എന്തെങ്കിലും ആരോടും പറഞ്ഞിട്ടില്ല തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ

നാളെ തിരുമേനി ഫ്രീ ആണോ വന്നാൽ കാണാൻ പറ്റുമോ അതെ അല്ലേ ആ കാണാമല്ലേ ആ ആ ആ

ആ തിരുമേനി അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്തുന്നതിന് ബു കുഴപ്പം ഇല്ലല്ലോ ആ ആ ആ വീട്ടിൽ നമുക്ക് ആ ആ വീട്ടിൽ നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ പന്തലിടാൻ ഉള്ള ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം ആൾക്കാർക്ക് വരാനും സൗകര്യം ഉണ്ടായിരുന്നു ആ റിസെപ്ഷൻ പിന്നെ തിരുമേനി ഈ റിസെപ്ഷൻ നടത്തുമ്പം നമുക്ക് പിന്നെ നോൺ വെജ് കൊടുക്കുന്നതിൽ പ്രശ്നം ഉണ്ടോ ആ കല്യാണം കഴി വൈകുന്നേരം റിസെപ്ഷൻ പുറത്ത് നടത്താനാണ് ഓഡിറ്റോറിയത്തിൽ കുഴപ്പമില്ല അല്ലേ ആ ആ എന്നാൽ ആ ആ ന്ന ഇല്ലില്ല അല്ല അവർ അവിടെ നോ ചെറുക്കൻറെ വീട്ടുകാർ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഒരു സൗകര്യപ്രദം നോക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ അടുത്ത് ഇവിടെ ചേട്ടൻറെ പരിചയത്തിൽ ഒരാളെ കൊണ്ട് നോക്കിച്ചു അപ്പോൾ ഇങ്ങനെ പത്തിൽ ആറ് പൊരുത്തം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഒന്നിങ്ങനെ തിരുമേനിയെ കണ്ടൊന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചിരുന്നു ആ ഒരു നാളെ ആ നാളെ പത്ത് മണിയാവുമ്പോൾ അല്ലേ ഓക്കെ ഓക്കെ ശരി തിരുമേനി